ആ അയ്യോ ചേട്ടാ ട്രാഫിക്ക് ബ്ലോക്കായല്ലോ എന്താ ചെയ്യുക ഇനി എനിക്കാണെങ്കിൽ കറക്റ്റ് സമയത്തവിടെ എത്തുകയും വേണം ഒരു മീറ്റിംഗ് ഉള്ളതാണ് അപ്പം നമുക്ക് വേറെ ഏതെങ്കിലും ഷോട്ട്കട്ട് ഏതെങ്കിലും ഉണ്ടോയെന്നൊന്ന് അറിയുമോ ചേട്ടന് അല്ലെങ്കിൽപ്പിന്നെ നമ്മൾ കറക്റ്റ് സമയത്ത് എത്തത്തില്ലല്ലോ ഇനിയിപ്പം എത്ര സമയം ഇവിടെ വെയ്റ്റ് ചെയ്യേണ്ടി വരും അറിയുമെങ്കിൽ ചേട്ടന് ഏതെങ്കിലുമൊരു വേറെ വഴിക്ക് പോവാന് പറ്റും എന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലുമൊന്ന് അവിടെ ഒന്നെത്തിക്ക്

ആ ഞാന് എങ്ങനെയെങ്കിലും ഒന്നെത്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ആ റെയ്റ്റിനെക്കാളും ഞാന് കുറച്ച് എമൗണ്ട് കൂടുതൽ തരാം എങ്ങനെയെങ്കിലുമൊന്ന് എന്നെ ഒന്നെത്തിച്ച് താ അല്ലെങ്കിൽ പിന്നെ ഇത്രയും സമയം നമുക്ക് വെയ്റ്റ് ചെയ്യാന് സാധിക്കത്തില്ലല്ലോ അതുകൊണ്ടാണ് ഇതെന്താ ഇപ്പം ഇങ്ങനെ ഇത്രയും ട്രാഫിക്ക് ബ്ലോക്ക് വരാന് കാര്യം എന്താണാവോ എന്തെങ്കിലും ജാഥയോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടി നടക്കുന്നുണ്ടോ അതുകൊണ്ടാണോ ഒന്നുചെന്ന് ഒന്നു ഒന്നിക്കൂടി അന്വേഷിക്ക് ഇപ്പഴെങ്ങാനും മാറുമോ ഇല്ലയോയെന്ന് നോക്ക് അല്ലെങ്കിൽ ഒന്ന് എങ്ങനെയെങ്കിലുമൊന്ന് അല്ലെങ്കിൽ ഇപ്പുറത്തെ റൂട്ട് വഴി ആണെങ്കിലും ഒന്ന് പോവാന് പറ്റുമെങ്കിൽ പോവാന് പോവു ചേട്ടാ